ആ മാഡം പറയൂ എന്തക്കെയാണ് വേണ്ടത് ആ നിങ്ങളുടെ പർപ്പസ് എന്താണ് ഗെയിമിങ്ങാണൊ അതോ വീഡിയൊ റെൻറ്ററിങ്ങ് ആണോ ഗെയിമിങ്ങിനാണ് ഓക്കെ അപ്പം ഏതെങ്കിലും കമ്പനി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയോട് താൽപ്പര്യമുണ്ടൊ പ്രത്യേകിച്ചിപ്പം സാംസങ്ങ് വേണോ അതോ റിയൽമി വേണോ നോക്കിയ വേണോ അങ്ങനെ ഏതെങ്കിലും റിയൽമി അപ്പം ബഡ്ജറ്റ് ഫ്രെണ്ട്ലി ആയിട്ടാണ് ഒരുപാട് പൈസ ചിലവാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യവുമില്ല അപ്പം ഇല്ല ആ ഇപ്പം അറിയാലൊ ഗെയിമിഗിനൊക്കെ നല്ല ഫോണായി ഐ ഫോണൊക്കെ ഉണ്ട് ഇന്ന് ഗെയിമിങ്ങിനൊക്കെ നല്ലതാണ് ഇപ്പം നിങ്ങൾ അതു പോലെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണെടുക്കാം ഈ എം ഐ ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അൻപത് അൻപതിനൊക്കെ വേണമെങ്കിൽ ആപ്പിളൊക്കെ വേണമെങ്കിൽ നമുക്ക് സെക്കൻ്റ് ഹാൻ്റിനായാലും നമുക്ക് എടുത്ത് തരാൻ പറ്റും സെക്കൻ്റ്ഹാൻ്റിനോട് താൽപ്പര്യമില്ല ഓക്കെ ഈ എം ഐ എങ്ങനെ ഇപ്പോൾ എത്ര വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്കുണ്ട് ഒരു വർഷത്തേക്കുണ്ട് രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് ആവുമ്പോൾ മാസം നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വച്ച് അടയ്ക്കേണ്ടി വരും രണ്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത് മാസത്തേക്കാണ് അത്

മന്ത്ലി രണ്ടായിരത്തി അഞ്ഞൂറ് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഈ ഫോണ് വാങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ ഇത്രയും സ്റ്റെപ്പുള്ള ഒരു ഫോണ് വേണമെന്നും പറയുന്നു പിന്നെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കാൻ അതും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് എങ്ങനെ വാങ്ങാനാണ് അതെ നിങ്ങൾ ബഡ്ജറ്റ് നോക്കണം നിങ്ങൾക്ക് ഫോണും വേണമല്ലോ ആ അപ്പ നിങ്ങളുടെ അല്ലെങ്കി ൽഅത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഈ സ്റ്റക്കുള്ള ഫോണൊന്നും കിട്ടില്ല ഇതിനേക്കാളും കുറച്ചൂ കൂടെ താഴ്ന്ന റേഞ്ചിൽ പോവേണ്ടി വരും നിങ്ങൾക്ക് ഈ എം ഐ മാസം എത്ര രൂപ വച്ച് അടയ്ക്കാൻ പറ്റും ആ രണ്ടായിരം ഒക്കെ ആണെങ്കിൽ ഓക്കെ ഒര് നാൽപ്പതിനായിരത്തിന് രൂപയിലൊക്കെ ഏകദേശം ഒതുങ്ങുന്ന ഏതെങ്കിലും ഒരു നല്ല ഫോണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം പക്ഷെ അത് ചിലപ്പോൾ എയ്റ്റ് ജീ ബി റാമൊന്നുമുണ്ടായെന്ന് വരില്ല അപ്പം അതിന് എങ്ങനെയാണ് നിങ്ങൾ ഒക്കെ ആണൊ ഇല്ല ഈ എം ഐ ഈ എം ഐ കളക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ആൾ വരും ആ പ്രൂഫായിട്ട് നിങ്ങളുടെ ആധാറും പിന്നെ ഒരു റേഷൻ കാർഡിൻ്റെ കോപ്പിയും അതായത് നിങ്ങളുടെ അഡ്രസ്സ് വേരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പാസ്പ്പോട്ട് സൈസ്സ് ഫോട്ടോയും വേണം അഡ്വാൻസ് ആയിട്ട് ഒരു അയ്യായിരം രൂപ ആദ്യം പേമെൻ്റ് ചെയ്യണം എന്നിട്ട് മന്ത്ലി നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടായിരം രൂപ വച്ച് പേമെൻ്റ് ചെയ്യണം ഇപ്പം ഒരു കണ്ടിന്യുവസ് ആയിട്ട് മൂന്ന് മാസം നിങ്ങൾ പേ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തുടർ നടപടികളെടുക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കോടതി വരെ കയറേണ്ടി വരും ഓക്കെ ആണൊ അപ്പോൾ ഓക്കെ ഞങ്ങൾ ഈ ഫോണ് തരും ഓക്കെ താങ്ക് യു ഫോർ പർച്ചേസിങ്